ഇത് പിന്നെ റസ്റ്റോറൻറ്റ് അല്ലേ ഓക്കെ ഞാൻ വിളിച്ചത് പിന്നെ എനിക്ക് കുറച്ച് പിന്നെ ഫുഡിന് കുറച്ചു മാറ്റങ്ങളൊക്കെ വരുത്താൻ ഞാൻ കുറച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ കുറച്ച് എരിവ് കൂടുതലും കുറഞ്ഞൊക്കെ ആയിട്ട് ഡിഷിന് കുറച്ച് മാറ്റം വരുത്താൻ അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഭയങ്കര ബീഫൊക്കെയാണെങ്കിൽ നല്ല അത്യാവശ്യം എരിവിട്ട് വരട്ടിയെടുക്കണം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് പറയാൻ പറ്റുമോ നമുക്ക് വോയിസ് അയക്കാൻ പറ്റുമോ അതോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സൗകര്യം നിങ്ങളുടെ റസ്റ്റോറൻറ്റിന് ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അയക്കാൻ പറ്റൂമല്ലോ നമുക്കെന്തൊക്കെ നിർദ്ദേശം നൽകാൻ പറ്റും നമുക്ക് വേണ്ട എങ്ങനെയാണ് മധുരം വേണോ മധുരം വേണ്ടയോ അതോ റൈസിന് മസാല കൂടുതൽ വേണോയെന്നൊക്കെ നമുക്ക് പറയാമല്ലോ അതൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതാ അങ്ങനെ ഒരു ആപ്പോ അല്ലെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അയച്ചാൽ നിങ്ങളങ്ങനെ ആക്കി തരുമോയെന്നൊക്കെ അറിയാൻ ആയിരുന്നു